ഞാനാ തയ്ക്കുന്ന ഡ്രസ്സിൻ്റെയൊക്കെ ഡിസൈനുകളൊക്കെ ഞാൻ കൂടുതല് ഇപ്പോള് ഓൺലൈൻ ഇവിടെ യൂ ട്യുബിലൊക്കെ ഉണ്ടല്ലോ ഒത്തിരി പറ്റേൺസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ തെരെഞ്ഞെടുക്കും പിന്നെ അങ്ങനെ കൂടുതല് അങ്ങനെതന്നെയാ തെരഞ്ഞെടുക്കുന്നത് അല്ലാതെ വേറെ വഴികളിലൂടെ തെരെഞ്ഞെടുക്കാനായിട്ട് പിന്നെ ഈ നമുക്ക് പരിചയം ഉള്ള എൻ്റെ ഫ്രണ്ട്സ് ഒക്കെയുണ്ട് അപ്പോള് അവരൊക്കെ തയ്ച്ചിരിക്കുന്നത് കാണുമ്പോള് നമുക്ക് അതുപോലെ നോക്കും പിന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ ടീച്ചർ കുറേ പാറ്റേൺസൊക്കെ പറഞ്ഞ് ആദ്യമേ കുറേയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കുറേ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയും ചെയ്യും പിന്നെ പി അങ്ങനെ അങ്ങനെയാണ് കൂടുതല് ഞങ്ങള്ക്ക് ലഭിക്കാറ് അപ്പോള് അത് നല്ല രീതിയില് നമുക്കിപ്പോള് ഓൺലൈൻ വഴിയൊക്കെ ആണേല് ഇഷ്ടംപോണ്ക്ക് ഒരുപാട് ഡിസൈൻസ് നെക്കിൻ്റെ ആണേലും മോഡല് അതായത് ടോപ്പോക്കെ തയ്ക്കുന്നെന് ആണേലും ഒത്തിരി മോഡലുകള് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ബോട്ടം ബോട്ടത്തിൻ്റെ ആണേലും പല ഫാഷനിലുള്ള ബോട്ടപ്പ് പലരീതിലുള്ള ബോട്ടംസ് ഇറങ്ങുന്നുണ്ട് അത് അതിനനുസരിച്ചുള്ള ഇപ്പോള് ഫാഷനുള്ള ബോട്ടംസ് ഇറങ്ങി അതേ രീതിയിൽ തയ്ക്കാൻ ഒക്കെ ആണേൽ നമക്ക് ഏറ്റവും കൂടുതല് സത്യം പറഞ്ഞാല് സഹായിക്കുന്നത് ഓൺലൈൻ തന്നെയാണ് ഓൺലൈൻ വഴി ആകുമ്പോള് നമുക്ക് ഏറ്റവും ഓൺലൈൻ ഓൺലൈൻ വഴി എന്നുവച്ചാല് യൂ ട്യൂബ് അങ്ങനെയുള്ള ഇതിനകത്തോട്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇത് ഡിസൈൻ കാണാൻ പറ്റുന്നത് അപ്പോള് നമ്മള്ക്കത് അത് വീഡിയോ ആയിട്ട് എടുക്കുന്നോണ്ട് നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും എങ്ങനെയാണ് തയ്ക്കുന്നത് അത് എങ്ങനെയാണ് എടുക്കുന്നതൊക്കെ നമക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാല് മതി കാരണം നമുക്ക് ആൾറെഡി നമുക്ക് അറിയാവുന്നോണ്ട് നമുക്കതൊന്ന് കണ്ടുകിട്ടിയാല് മതി അങ്ങനെയുണ്ട് പിന്നെ മറ്റ് അല്ലാതാവുരെടെന്ന് പറഞ്ഞ ആത് കിട്ടാനായിട്ട് പ്രയാസമെന്നു പറഞ്ഞാല് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കാരണം നമുക്ക് ഇപ്പോള് അവരുടെ അവര് തയ്ച്ചതാണേലും നമുക്ക് കണ്ടാലും നമ്മള്ക്കത് മനസ്സിലാവും കാരണം ആൾറെഡി നമുക്ക് നമ്മള് അറിയാവുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവും അങ്ങനെ ഒരു വിഷയം ഇല്ല അങ്ങനെ ആ രീതിയിലൊക്കെ നമുക്കത് ഇത് കണ്ടുപഠിക്കാനും നമുക്കത് ചെയ്യാനും നമുക്ക് ഒത്തിരി സഹായമാണ് പിന്നെ നല്ല നല്ല നല്ല നല്ലത് കാണുമ്പോള് നമുക്കത് നല്ലതാണ് കണ്ടുപിടിച്ചെടുക്കാൻ ഒട്ടും പ്രയാസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവരുടെ സഹായം നമ്മള് കൂട്ടുകാരുടെയൊക്കെ സഹായം തേടുന്നതിന് തേടുന്നതും എനിക്ക് ഇഷ്ടമാണ് ഞാൻ അതിനോടും താൽപര്യം കാണിക്കാറുണ്ട്